നമ്മുടെ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ധാരാളം പ്രദേശിക സംരക്ഷണ പദ്ധതികൾ അല്ലെങ്കിൽ പരിസ്ഥിതി സംരംഭങ്ങൾ ഗവണ്മെന്റ് തുടങ്ങുന്നുണ്ട് ഇതെല്ലാം തുടങ്ങുന്നത് നമ്മുടെ കുടുംബശ്രീ അംഗങ്ങളിലൂടെയും തൊഴിലുറപ്പ് പദ്ധതികളിലൂടെയുമാണ് ഈ പദ്ധതികളൊല്ലാം പലപ്പോഴും ധാരാളം വെല്ലുവിളികളും ഇത് നേരിടുന്നുണ്ട് എന്നിരുന്നാല് പോലും പല പദ്ധതികളും വിജയം കാണാറുമുണ്ട് അങ്ങനെ വിജയം കാണുന്നതിന്റെ ഫലമായിട്ട് ആണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ ആവാസ വ്യവസ്ഥയെ ഒരു പരിധി വരെ പിടിച്ചു നിര്ത്താന് കഴിഞ്ഞതെന്നുള്ളത് കാരണം വന മേഘലയിലും മറ്റും ധാരാളം പ്ലാസ്റ്റിക് നിക്ഷേപണങ്ങൾ നടത്തിയിരുന്നത് എല്ലാം പ്ലാസ്റ്റിക് എല്ലാം കളക്ട് ചെയ്യുകയും അത് എല്ലാം നല്ല രീതിയിൽ സംസ്ക്കരിച്ച് നമ്മുടെ ആവാസ വ്യവസ്ഥയെ നല്ലൊരു സന്തുലിതാവസ്ഥയില് നിര്ത്താന് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് വളരെ വലിയൊരു വിജയമാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ജല മലിനീകരണം രൂക്ഷമയി കൊണ്ടിരിക്കുന്ന ഒരു ജലമലിനീകരണമാണ് നമ്മുടെ പ്രദേശത്ത് ഉള്ളത് ഈ ജല മലിനീകരണം എല്ലാം നല്ല രീതിയിൽ മാറ്റാന് അതായത് നമ്മുടെ കുളങ്ങളിലെയും നദികളിലെയും തടാകങ്ങളിലെയും മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്യുകയും ആ മാലിന്യങ്ങളെല്ലാം സംസ്കരിച്ച് നമ്മുടെ അവിടെയുള്ള ജലം നമുക്ക് കുടിക്കാന് ഉപയോഗിക്കുന്ന തരത്തിലേക്ക് മാറ്റാന് കഴിഞ്ഞൂന്നുള്ളത് ഒരു വളരെ വലിയൊരു കാര്യം തന്നെയാണ് പിന്നെ നമ്മുടെ സമൂ പ്രദേശത്തെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ ധാരാളം വൃക്ഷ തൈകൾ നട്ടു പിടിപ്പിക്കാറുണ്ട് കാരണം മണ്ണൊലിപ്പ് തടയാനും ഉരുള്പ്പൊട്ടല് തടയാനും എല്ലാം ഒരുപാട് വൃക്ഷ തൈകള് നമ്മൾ നട്ട് പിടിപ്പിക്കാറുണ്ട് പിന്നെ ഇപ്പോൾ നമ്മൾ നേരിടുന്ന മറ്റൊരു വെല്ലുവിളിയെന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈനേജ് സിസ്റ്റം തന്നെയാണ് കാരണം ഒരു മഴക്കാലം ആകുന്നതോടെ ഡ്രൈനേജ് എല്ലാം പൊട്ടി ഗതാഗതം അതായത് നമുക്ക് ഗതാഗത സൗകര്യത്തിന് പോലും കഴിയാന് പറ്റാത്ത പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടില് നിലവിലുള്ളത് അത് ഒരു വലിയ പോരായ്മ തന്നെയാണ് നമ്മുടെ ഡ്രൈനേജ് സിസ്റ്റത്തില് നിന്ന് വരുന്നത്